ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യാമാണ് രാഷ്ട്രീയവും മതവും അതായത് രാഷ്ട്രീയം എങ്ങനെ മതത്തെ ബാധിക്കുന്നു അല്ലെങ്കിൽ മതം എങ്ങനെ രാഷ്ട്രീയത്തെ ബാധിക്കുന്നു രണ്ടും അങ്ങോട്ട് ഇങ്ങോട്ടും ഇന്ഫ്ലുവന്സ് ചെയ്യുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു അഞ്ചു പത്തു വർഷമായിട്ട് രാഷ്ട്രീയവും മതവും എന്താ അവർ ഒരു ടൈ അപ്പിൽ പോകുന്ന ഒരു അവസ്ഥയാണുള്ളത് അതായത് കൂടുതലായിട്ടും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യന് ഈ മതവും ബാക്കിയുള്ള രാഷ്ട്രീയ പാര്ട്ടികളും ഒരു ഒരു കോഡിനേഷനിലാണ് ഇപ്പോൾ പൊയ്ക്കോണ്ടുള്ളത് അതായത് ചില ആള്ക്കാരെന്താ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയം മതത്തിനെ മുതലെടുക്കുന്നത് കൂടുതലായിട്ട് ഈ ഇലക്ഷന്റെ സമയത്താണ് അതായത് എന്താ ഒരു സ്ഥാനാര്ത്ഥി ഏത് മതത്തിലാണ് ഉള്ളത് അപ്പോൾ വീട്ടിൽ പോയിട്ട് വോട്ട് ചോദിക്കുന്ന സമയത്ത് അവര് പറയും ആ നിങ്ങളുടെ സ്ഥാനാര്ത്ഥി നിങ്ങളുടെ മതത്തിലെ ആളാ അല്ലെങ്കിൽ നിങ്ങളുടെ ജാതിയിലുള്ള ആളാണ് അപ്പോൾ നിങ്ങൾ ഇവർക്ക് വോട്ട് കൊടുക്കണം അതായത് നിങ്ങളുടെ ജാതിയുടെ ഇഷ്യൂ ആണ് നിങ്ങളുടെ ജാതിയുടെ പ്രെസ്റ്റീജിന്റെ കാര്യമാണ് നിങ്ങളുടെ മതത്തിനെ റെപ്രസന്റ് ചെയ്തു വരുന്ന ആളാണ് നിങ്ങൾ അവരെ എന്താ ജയിപ്പിക്കണം അവർക്ക് വേണ്ടി വോട്ടു ചെയ്യണം നിങ്ങളുടെ വീട്ടിലുള്ള ആള്ക്കാരെല്ലാം വോട്ടു ചെയ്യണം അങ്ങനെ ആ ഒരു തരത്തിൽ മതത്തിനെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇലക്ഷന്റെ സമയത്ത് വോട്ടു വാങ്ങിച്ച് ജയിക്കുന്ന ആള്ക്കാർ ഉണ്ട് അതുപോലെ തന്നെ എന്താ ഹിന്ദു മതം ഹിന്ദു മതത്തിന് കൂടുതലായിട്ട് മുമ്പിലോട്ടു കൊണ്ട് വന്നിട്ട് അതിനു വേണ്ടീട്ടു സംസാരിച്ച് പിന്നെന്താ ഇപ്പോൾ കൂടുതലായിട്ട് ഹിന്ദു മതം എന്താ കൂടുതലായിട്ട് ആള്ക്കാർ സംസാരിക്കുന്നുണ്ട് അതായത് നമ്മുടെ മതത്തിന് ജാതിക്ക് വേണ്ടപോലെ പിന്നെ സംവരണം കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല പിന്നെ അപ്പോൾ എന്താ ഒരു ഇലക്ഷന് വരുന്ന സമയത്ത് ഒരു സ്ഥാനാര്ത്ഥി വന്നു പറയുന്നു ഞാന് നിങ്ങളുടെ ജാതിക്കു വേണ്ടി ഇങ്ങനെ ചെയ്യാം ഞാന് നിങ്ങളുടെ മതത്തിന് വേണ്ടീട്ടു ഇങ്ങനെ ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ ഈ ജാതിയും മതവും എന്താ വല്ലാണ്ട് ഉള്ളിലുള്ള ആള്ക്കാർ ഇതിനു വേണ്ടി പോവും അതായത് ആ നമ്മള്ക്ക് നമ്മുടെ ജാതിക്കു വേണ്ടി സംസാരിക്കുന്ന ആളാണ് നമ്മുടെ മതത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളാണ് എന്ന് വച്ചിട്ട് എന്താ ഇവർക്ക് വോട്ടു കൊടുക്കും സത്യത്തില് അവർ എന്താ ഈ ഇലക്ഷന്റെ സമയത്ത് ഇവരുടെ ഒരു ഫീലിങ്ങ്സ് അതായത് ജാതിയോടുള്ള അവരുടെ ഫീലിങ്ങ്സ് മതത്തിനോടുള്ള അവരുടെ ഫീലിങ്ങ്സ് മുതലെടുത്ത് ജയിക്കാന് വേണ്ടി മാത്രാണ് നോക്കുന്നേത് അതല്ലാതെ അവരൊരിക്കലും എന്താ ജാതിക്കു വേണ്ടീട്ടോ മതത്തിനു വേണ്ടീട്ടൊന്നും പിന്നെ കൂടുതലായിട്ട് ഒന്നും ചെയ്യാന് പോകുന്നില്ല അവരെന്താ അവർക്ക് സ്വയം പൈസ ഉണ്ടാക്കാനും പിന്നെ അവരുടെ പാര്ട്ടീനെ വലുതാക്കാനും അവര്ക്ക് ഭരണം കിട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങള്ക്കു വേണ്ടീട്ടു മാത്രമാണ് അവർ ചെയ്യുന്നത് പിന്നെ എന്താ ഇപ്പം കാണുന്ന ഒരു കാര്യം എന്താ വച്ചാൽ ചില മതത്തിന്റെ പരിപാടികൾ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി ആവുന്നുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി മതത്തിന്റെ പരിപാടിയാവുന്നുണ്ട് എന്നു വച്ചാൽ എന്താ ഇപ്പോൾ പാർലമെന്റിന്റെ സമയത്ത് ഉദ്ഘാടനത്തിന്റെ സമയത്ത് പുതിയ ബില്ഡിങ്ങിന്റെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് കണ്ടതാന്ന് എന്താ ഹിന്ദു മതത്തിന്റെ ആചാരപ്രകാരമാണ് അവിടെ ഉദ്ഘാടനം ചെയ്തത് അതായത് എന്താ കുറേ സന്യാസിമാരെ എല്ലാം കൊണ്ടു വന്ന് പിന്നെ ഹോമം ഉണ്ടാ ഹോമമെല്ലാം ഉണ്ടാക്കി അങ്ങനെ ഒരു തരത്തിലുള്ള ഉദ്ഘാടനം ഈ ഹോമം സന്യാസിമാർ എന്നൊക്കെ പറയുന്നത് സിക്കുമതത്തില് ഇല്ല ക്രിസ്ത്യന് മതത്തിലില്ല മുസ്ലീം മതത്തിലില്ല പിന്നെ എന്താ ഹിന്ദു മതത്തിലാണ് ഉള്ളത് അപ്പം അവരെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ എന്താ ആ ഒരു നേതാവ് ആ ഒരു മതത്തിലുള്ള ആളായത് കൊണ്ട് അതിനെ പ്രചരിപ്പിക്കാന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ എന്താ മൊത്തത്തിൽ എന്താ തഴഞ്ഞു മാറ്റി കൊണ്ട് അങ്ങനെ ഉള്ളൊരു പിന്നെ പരിപാടിയാണ് ഉണ്ടായത് അതുപോലെത്തന്നെ ഒരു ക്ഷേത്രത്തിന്റെ പരിപാടി അതിന്റെ ഒരു ഉദ്ഘാടനം അതിന്റെ തുടക്കം എന്നെല്ലാം പറയുന്നത് എന്താ പിന്നെ ഒരു പാര്ട്ടിയുടെ പരിപാടി ആയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു പിന്നെ ബാബറി മസ്ജിദിന്റെ വിഷയത്തിലെല്ലാം അതിലെന്താ രണ്ട് പിന്നെ പാര്ട്ടിയുടെ മതത്തിന്റെ കൂടി ഇഷ്യൂ ആയി മാറിയിട്ടുണ്ട് അത് അതായത് പിന്നെ പള്ളി ആണെങ്കിൽ മുസ്ലീം പിന്നെ മതത്തില്പ്പെട്ട ആള്ക്കാർ അതിനു വേണ്ടീട്ടു അവർ പിന്നെ ഫൈറ്റ് ചെയ്യുന്നു പിന്നെ അമ്പലത്തിന്റെ വിഷയം വരുമ്പോൾ എന്താ കുറച്ചു ഹിന്ദുക്കൾ കൂടി അതിനു വേണ്ടീട്ടു ഫൈറ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ എന്താ നാട്ടിൽ നല്ല സുഹൃത്തുക്കളെ പോലെ നിൽക്കുന്ന ആള്ക്കാരായിരിക്കും പക്ഷെ എന്നാൽ പോലും അവർ എന്താ ജാതിയുടെയും മതത്തിന്റെയും പേര് വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് സ്വാര്ത്ഥരാവുന്നുണ്ട് പിന്നെ ഈ രാഷ്ട്രീയ സംഘര്ഷത്തില് ഇപ്പം ഏറ്റവും കൂടുതല് ഉണ്ടാവുന്നത് മതത്തിന്റെ പേരിലാണ് അതായത് എന്താ രണ്ടു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് മാത്രല്ല ആ രണ്ടു പാര്ട്ടികള്ക്കിടയിലുള്ള സംഘർഷം ഉണ്ടാവുന്നത് രണ്ട് ചിലപ്പോൾ എന്താ രണ്ട് പാർട്ടി എന്നു പറയുന്നത് രണ്ടു മതത്തിനെ റെപ്രസന്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ എന്താ മുസ്ലിം മതത്തിനെ റെപ്രസന്റ് ചെയ്തുന്ന പാർട്ടിയുണ്ട് അതേപോലെത്തന്നെ ഹിന്ദു മതത്തിനെ റെപ്രസന്റ് ചെയ്യുന്ന പാർട്ടിയുണ്ട് അപ്പോൾ അവർ രണ്ട് രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി അവർ ഫൈറ്റ് ചെയ്യുന്നത് ആ രണ്ടു മതത്തിനു വേണ്ടിയിട്ടാണ് അതായത് ഞാൻ ഈ മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ ഈ പാർട്ടിയിലാണ് ഓപ്പോസിറ്റിലുള്ള ആളും അതേപോലെ ആയിരിക്കും അപ്പോൾ അവിടെ സംഘർഷം വരുന്നത് സത്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഒരു ആശയമാണ് അതായത് പിന്നെ ഒരു ആശയത്തിനെ അനുകൂലിക്കുന്നവർ ഒരു പാര്ട്ടി അതല്ല ഇന്നതാണ് ആശയം എന്ന് പറയുന്നവർ വേറൊരു പാര്ട്ടി പക്ഷെ അങ്ങനെയൊന്നും അല്ല ഉണ്ടാകുന്നതല്ലോ ഇതിപ്പോൾ മതം എന്താണോ മതം ഫോളോ ചെയ്യാന് പറയുന്നത് അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഒരു പാര്ട്ടി മറ്റേ ആള്ക്കാർ വേറൊരു പാര്ട്ടി ആ രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കോണ്ടുള്ളത്